നേരത്തേയാണെങ്കിൽ എനിക്ക് നെയ്ത്തിനും നെയ്യുന്നതിനും തയ്ക്കുന്നതിനുമെല്ലാം ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോൾ നെയ്ത്ത് പഠിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അന്നേരമൊന്നും ഞങ്ങളുടെ നാടുകളിലൊന്നും നെയ്ത്തങ്ങന്ന ഒരു സംഭവമില്ലായിരുന്നു അത് അതുകൊണ്ട് അന്നേരം പിന്നീട് തയ്യൽ പഠിച്ച് തയ്യലിലേക്കങ്ങ് മാറി അപ്പം ഇനിയിപ്പം നെയ്ത്ത് ചെയ്യാനുള്ള ശാരീരിക അവസ്ഥകളൊന്നും ഇല്ല അതുകൊണ്ട് ഈ നെയ്ത്തുമായിട്ട് ഇനിയും തുണി നെയ്ത് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടോയെന്നു ചോദിച്ചാൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത്രയും പ്രായമായതുകൊണ്ട് ഇനിയിപ്പം അതൊന്നും നടക്കുമെന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ നാട്ടിലിപ്പം നെയ്ത്തൊന്നും ഇല്ല ഇഷ്ടംപോലെ തയ്യലും തയ്യൽക്കാരൊക്കെയെ ഉള്ളു അങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പം നെയ്ത്ത് ശാലെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഒരുപാടുപേരുതന്നെ നെയ്ത്ത് പഠിക്കാനായിട്ടും തൊഴ്ലില്ലായ്മ ഒത്തിരിയൊക്കെ പരിഹരിക്കാനും ഒക്കെ മുന്നിട്ട് വരും നെയ്ത്ത് ഒരു ജീവിതമാർഗ്ഗമായി സ്വീകരിക്കുവാനും ഒക്കെ നെയ്ത്ത് ശാലകൾ നമ്മുടെ ഗ്രാമത്തിൽ വന്നാലേ അത് നടക്കുകയുള്ളു ഇപ്പോൾ ദൂരദേശത്തേക്ക് എല്ലാ മക്കളും പ്ലസ്ടു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് ദൂരദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനും എല്ലാമായിട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ പഠിക്കാനുള്ള ഓരോ അവസരങ്ങൾ ഉണ്ടാക്കിയാലെ അതിന് സാധിക്കുകയുള്ളു പിന്നെ പഴയകാലം ഇല്ലായിപ്പോൾ പൊതുവായതുപോലെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് നേഴ്സിങ്ങിലേക്കും അങ്ങനെയുള്ള ഓരോ ഇതിലേക്കും മാറിക്കൊണ്ടേ ഇരിക്കുകണ് ഇപ്പം നെയ്ത്തുകാരും തയ്യൽക്കാരുമാവാൻ ആരും തന്നെ ആഗ്രഹിക്കിന്നില്ല അതിനൊന്നും ആൾ ഇല്ലതാനും ഇപ്പോൾപ്പിന്നെ പിന്നെയിവിടെനിന്നും പഠിക്കാനായിട്ടുള്ള ഒരു സൌകര്യവുമില്ല അപ്പം നേരത്തെയൊക്കെ എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാടുപേർ ഈ തൊഴിൽ പഠിച്ച് ഒരു നല്ല ജീവിതമാർഗ്ഗം ഉണ്ടാക്കിയേനെ ഇപ്പോൾ നിസ്സാരമായൊരു ഒരു പട്ടുസാരി തന്നെ മേടിക്കണമെങ്കിൽ നെയ്ത്തു ശാലയിൽപ്പോയി മേടിക്കുകയാണെങ്കിൽ ഇത്തിരി വിലക്കുറവാണ് അല്ലാതെ നമ്മൾ ഒരു കടയിൽപ്പോയി മേടിക്കുകയാണെങ്കിലതിന് നല്ല വില കൊടുക്കണം അപ്പം അങ്ങനെയുള്ള ഒരു സംരംഭം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എങ്കിൽ ഒത്തിരിയേറെ നല്ലതായിരുന്നു പിന്നെ അനേകം മക്കൾ തൊഴിലിനായി വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നു അവിടെ പഠിച്ച് അവിടത്തന്നെ ജോലിചെയ്ത് ജീവിക്കിന്നു അപ്പം അവരവിടെ സെറ്റിൽഡായിപ്പോവുന്നു അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആർക്കും അതങ്ങനെ പഠിക്കാനും ഒന്നും സാധിച്ചിട്ടും ഇല്ല